നമ്മുടെ ഇടയിലുള്ള ഓ ഓട്ടം അല്ലെങ്കിൽ ഓട്ടമത്സരം നടത്തമത്സരം എന്നിങ്ങനെ ഉള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഒന്ന് തന്നെയാണ് നീന്തലും ഇപ്പോൾ നമ്മുടെ ഓ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസിനാണെങ്കിലും ഒരു ഒരു പിന്നെ ഒരു പ്രശ്നവുമില്ലാതെ നല്ലൊരു മാനസികാവസ്ഥയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മള് പല പല കായിക മേഖലയിലും നമ്മൾ ഏർപ്പെടും അതിൽ ഒന്ന് തന്നെയാണ് നീന്തലും നീന്തല് നമുക്ക് നമുക്കൊരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ വെള്ളം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുമല്ലോ ഒന്ന് നീന്തണമെന്ന് അപ്പോൾ നമുക്ക് നീന്തല് പഠിക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഇപ്പോൾ ബീച്ചിലോ അല്ലെങ്കിൽ പുഴയിലോ എവിടെയെങ്കിലും പോയി നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലു ഒരു ഇപ്പോൾ നമ്മള് പെട്ടന്ന് പുഴയിൽ വീണാൽ നമുക്ക് നീന്തൽ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അതിൽ നിന്ന് രക്ഷപെടാനായിട്ട് കഴിയും അതുപോലെതന്നെ ശ്വസന നിയന്ത്രണത്തിനും അതൊരു സഹായകമാണ് എന്തെന്ന് വച്ചാല് നമ്മളിപ്പോൾ പെട്ടന്ന് എവിടെയെങ്കിലും ഒന്ന് നമുക്ക് ഒരു ശ്വ വായു കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കില് നമുക്ക് നല്ല രീതിയില് വായു എടുക്കാൻ പറ്റാത്തൊര് സാഹചര്യം വന്നാൽ നമുക്ക് ശ്വസനം നിയന്ത്രിക്കാനും ഒരു സഹായകമായ ഒരു ഒന്നാണ് നീന്തൽ അപ്പോൾ നീന്തല് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യപരമായും മാനസികമായും നല്ല രീതിയിൽ തന്നെ ഒരു ഒരു കുളിർമയാണല്ലോ നല്ല നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ നല്ല നല്ലതാണ് നീന്തല് പഠിക്കുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ശരീരത്തിന് അയവ് വരാനും അതുപോലെ പിന്നെ ഒരുപാട് നീന്തൽ മത്സരങ്ങൾ ഇപ്പോൾ നമുക്ക് നമുക്ക് കാണാം നീന്തൽ മത്സരങ്ങളും അതുപോലെ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിൽ എല്ലാ സ്ഥലത്തിനും നീന്തൽ പഠിക്കാനുള്ളോരവസരം ഞങ്ങൾക്ക് നിങ്ങൾക്കെല്ലാർക്കും കിട്ടും ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ നീന്തൽ മത്സരം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ ഏതൊരു സ്ഥലത്ത് പോയാലും പൂൾ ഉണ്ടാകുമല്ലൊ അപ്പോൾ പൂളിലൊക്കെ ഇറങ്ങി നീന്താൻ നല്ല കൂട്ടുകാരുമൊക്കെ ഒത്ത് നീന്താനും നല്ല ഇഷ്ടായിരിക്കുമല്ലോ അപ്പോൾ നീന്തല് സഹായകമായൊരു ഘടകം തന്നെയാണ്